ഞാൻ ഓൺലൈനിൽ ആയിട്ട് ഒരു ചുരിദാർ വാങ്ങി ഇഷ്ടപ്പെട്ട് കണ്ട് ഇതിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അത് കൊള കി കയ്യിൽ കിട്ടി നോക്കിയപ്പോൾ ഷാൾ ഷാളിൻ്റെ വലുപ്പം തീരെ ചെറുതാണ് ഷാൾ ഷാൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ പാൻറ് പാൻറ് ആണെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് വലുതും ആയിരുന്നു പിന്നെ ടോപ്പ് ആണെങ്കിൽ തീരെ വാ ലൂസ് ലൂസ് ആയിട്ട് അധികം തടിയൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഷാൾ ടോപ്പ് ആണെങ്കിൽ ഒറ്റ ലൂസ് ആയിട്ട് ആയിരുന്നു പിന്നെ അത് ഏതായാലും ഇസ്തിരി ഒക്കെ ഇട്ട് കല്യാണത്തിന് അടുത്ത ചേച്ചി പറഞ്ഞത് കല്യാണത്തിനൊന്നും ഇടാൻ പറ്റില്ല അത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും പുതിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കല്യാണത്തിന് ഇട്ട് പോയി കല്യാണത്തിന് ഇട്ട് പോയപ്പോൾ അവിടെ ഒരു ചേച്ചി ചോദിച്ചു ഇത് എന്താണ് ഇത് ഇങ്ങനെ എത്ര പൈസ ഇതായത് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടായിരം രൂപയാണ് ചേച്ചി ഇതിന് വില ഇത് രണ്ടായിരത്തിനൊന്നും ഇല്ല എന്ന് ആ ചേച്ചി പറഞ്ഞു പിന്നെ ഇത് ഇത് ഒരു പ്രാവശ്യം ഞാൻ അലക്കി അലക്കി നോക്കിയപ്പോൾ പിന്നെ സോപ്പ് ഒക്കെ ഇട്ടിട്ട് ആണ് സാധാരണ സോപ്പ് ഇട്ടിട്ടാണ് ഞാൻ അലക്കിയത് സോപ്പ് ഇട്ട് അലക്കി പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല അലക്കിയപ്പോൾ കളർ ആകെ ഇളകി പോയി പിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ചുരിദാറായിരുന്നു പൈസ പോയി രണ്ടായിരത്തിനൊന്നും ഇല്ല എന്ന് ആ ചേച്ചി പറഞ്ഞു പിന്നെ അത് കളർ ഇളകിയപ്പോൾ ആ പൈസ പോയതിൽ ഭയങ്കര സങ്കടം വന്നു